ഇപ്പം നമ്മളൊക്കെ പൊതുവെ നമ്മൾ റോട്ടിലൂടെ പോകുന്ന ആളുകളാണല്ലോ എപ്പം ട്രയിൻ വാ ട്രയ്നായിട്ടും അതു പോലെത്തന്നെ ബസ്സായിട്ടും കാർ പല വെഹിക്കിളുപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യണെ അപ്പം തന്നെയിപ്പോൾ ഞമ്മളെ ഇന്ത്യയിലോ കേരളത്തിലൊക്കെത്തന്നെ പലേ സ്ഥലത്തും സഞ്ചരിച്ചുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൽ ഇപ്പോൾ പലേ ടൗണും അതു പോലെത്തന്നെ മുനിസിപ്പാലിറ്റി അങ്ങനെ കൂടുതല് ടൗണേരിയകളൊക്കെ നല്ല വാഹനങ്ങളുടെ ഒഴുക്കാണ് ഇപ്പോൾ ഞമ്മൾ പോണ സമയത്ത് ചിലപ്പോൾ ബ്ലോക്കും കാര്യങ്ങളും അതിനനുസരിച്ച് നമ്മളെ റോഡ് ഗുണം ഉണ്ടാകില്ല ചില റോഡൊക്കെ പല കുഴിയും വല്ല കിണർ കുത്തിയപോലേക്കരം കാരണ അത്ര രൂപത്തിലുള്ള ബുദ്ധിമുട്ട് ചിലപ്പൊരൂ ഗര്ഭിണീനെ കൊണ്ടക്കെ പോകാണെങ്കിലോ അല്ലെങ്കില് വേറെന്തെങ്കിലുമൊരു ഓപ്പറേഷനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന ബുദ്ധിമുട്ടോ അല്ലേ നമ്മളൊരു റോഡിലൂടെ യാത്ര ചെയ്യാണെന്നുണ്ടെങ്കിൽ പല രീതിയിലിപ്പം നമ്മൾ ഇപ്പോൾ റോഡിലൂടെ പോണ ബുദ്ധിമുട്ടിയാണ് ചിലപ്പം നമ്മളുടെ ബ്ലോക്ക് വരും അത് ഇന്നെന്താന്നറിയുമോ നല്ല ടൈറ്റായിട്ടുള്ള ആളുകൽ വന്നിട്ട് അല്ലെങ്കില് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടും വാഹനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് വരണത് അതിനനുസരിച്ച് നമ്മളുടെ റോഡും അല്ലെങ്കില് വികസനം കാര്യങ്ങളും ചില സ്ഥലത്ത് വന്നിട്ടുണ്ട് ചില സ്ഥലത്ത് വന്നിട്ടില്ല പിന്നിപ്പോൾ നോക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിമാനം കാര്യങ്ങളൊക്കെയാണ് ഒരു രാജ്യത്തു നിന്ന് എത്ര പെട്ടെന്നു ഈസിയായിട്ട് പറന്നു പറയുമ്പോലെ ഒരുപാട് കടലുകളും കരകളൊക്കെ കടന്ന് ഇങ്ങാണ്ടാണല്ലോ അട് ഒരു രാജ്യത്തു നിന്ന് അടുത്ത രാജ്യത്തേക്ക് പോകുക അപ്പോൾ അതിനൊക്കെ ഈസിയായിട്ട് നമുക്ക് വിമാനമാര്ഗ്ഗം നല്ലൊരു കാര്യമാണ് അതൊക്കൊരു ഇ ഇനി ഇവിടുന്നങ്ങോട്ട് നമുക്കെന്തോയ്ച്ചാൽ അതൊക്കെ നമുക്ക് കണ്ടു പിടിച്ചു കൊണ്ടു തന്നെ വലിയ ഉപകാരമാണ് കാരണം കുറേ ആളുകള്ക്ക് പണ്ടൊക്കെ കപ്പല് ഗതാഗതം ഉപയോഗിച്ചിട്ടൊക്കേനു വിദേശത്തേക്കു വരെ പോയീനെപ്പം അതിന്റെ ബുദ്ധിമുട്ടും അവി ടുന്നു ഭക്ഷണം കഴിക്കാനാ കപ്പലിലൊക്കെ ബുദ്ധിമുട്ടും കാരുണ്യവും മാത് ഒരെത്ര മാസങ്ങളോളം യാത്ര ചെയ്തിട്ടൊക്കെയാണ് ഒരു സ്ഥലത്തൊക്കെത്തീന അപ്പയിനെയൊക്കെ ന എന്തെന്നു വെച്ചു നോക്കുമ്പം ഇപ്പത്തേക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഉപകരമായിട്ടുണ്ട് പിന്നെ നമുക്ക് വിമാനം അതു പോലെത്തന്നെ ട്രയ്നിൽ ട്രയ്നാണെങ്കിലും ഒരു ലോങ്ങ് യാത്ര ചെയ്യാൻ നല്ലതൊക്കെത്തന്നെയാണ് പക്ഷെ ട്രയിനിൽ തന്നെ പലേ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ചിലയാളുകൾ ഇപ്പം ഞമ്മളൊക്കെത്തന്നെ ഇഴിപോരു സിനിമയായിട്ടും സോഷ്യല് മീഡിയയിൽ വന്നതായിട്ടും ഒക്കെ നോക്കുകയാണെങ്കില് ചില ബുദ്ധിമുട്ടുകളൊരുതെ ഇല്ലെ ഒരു ലേഡിക്ക് തനിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാനോ ഒരു ചിലപ്പോൾ ചിലപ്പൊരുപകാരമാണ് ശ്ശെ ചിലപ്പൊരു സംബന്ധിച്ചൊക്കെ ടോയ്ലെറ്റിൽ പോകാനൊക്കെ നോക്കുമ്പം ഞമ്മക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അപ്പോൾ ട്രയിനുപകാരം തന്നെയാണ് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചു നോക്കുമ്പം നമുക്ക് ചിലചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടിവരുന്നുണ്ട് പിന്നെ ബസ്സിൽ പോകാണെന്നുണ്ടെങ്ങിൽ തന്നെ റോഡാണ് കുണ്ടുംകുഴിയാണ് ഒരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ള വെള്ളത്തിലാണ്ട് എന്നാൽ റോഡാണ് നിൽക്കുകയാണ് മനെ റോഡേതാണ് വെള്ളമേതാന്ന് തിരിച്ചറിയാന് പറ്റാത്ത കാല സാഹചര്യമാണ് നമുക്ക് അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമുക്ക് ഗതാഗതം ആയിട്ട് ബന്ധപ്പെട്ട് കാണേണ്ടി വരുന്നത്